എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാത്തിനും എൻ്റെതായ ഒരു സമയമുണ്ട് അപ്പം പഠിത്തത്തിനാണേലും പാട്ടിനാണേലും മറ്റ് കാര്യങ്ങൾക്കാണേലും ഞാൻ സമയം ചിലവഴിക്കാറുണ്ട് പാടുന്നതിലൂടെ എനിക്ക് എൻ്റെ സന്തോഷോം സമാധാനമൊക്കെ കിട്ടാറുണ്ട് പഠനം പഠനത്തിനായി ഞാൻ ഒരു സമയം ചിലവഴിക്കുമ്പോൾ പാട്ടിനായി ഞാൻ മറ്റൊരു സമയം കണ്ടെത്താറുണ്ട് കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് പാട്ട് അപ്പോൾ അത് എനിക്ക് ഒരിക്കലും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കണ്ടെത്തിയേ പറ്റു അതോ അതുകൊണ്ടു ആയതിനാൽ ഞാൻ പഠനം പഠനത്തിനോടൊപ്പം എപ്പോഴും പാട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്